നമ്മുടെ കേരളത്തിൽ ആരോഗ്യത്തിൻ്റെ കാര്യത്തില് ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാര്യത്തില് മറ്റ് സംസഥാനത്തെക്കാളും കൂടുതല് കുറച്ചും കൂടെ നല്ല നിലവാരം പുലർത്തുന്നുണ്ട് എന്നാണ് എനിക്ക് തോന്നാറ് പിന്നെ നമ്മൾ കർണാടക എടുത്ത് നോക്കാം കർണാടകയിലെ ഒരു ഇത് വെച്ച് നോക്കുമ്പം നമ്മുടെ കേരളം തന്നെയാണ് ബെറ്റർ തമിഴ്നാട്ടിൽ കുറച്ച് നല്ല നല്ല ഹോസ്പിറ്റലുകളുണ്ട് സാധാരണക്കാരുടെ അവസ്ഥ വളരെ ദുബലമാണ് നമുക്ക് പൈസ ഉള്ളവർക്ക് നല്ല നല്ല ഹോസ്പിറ്റലിൽ പോകാം പക്ഷെ നമ്മുടെ കേരളം നോക്കുമ്പം എല്ലാവർക്കും നല്ല രീതിയിൽ ഉള്ള ചികിത്സ സഹായം ലഭ്യമാക്കാൻ വേണ്ടീട്ട് എല്ലാ നടപടിയും കേരളത്തിലുണ്ട് എനിക്ക് ചികിത്സയിൻ്റെ ഒരു ഇത് കാരണമായിട്ട് ഇല്ല മാരക ഒക്കെ അസുഖം ഒക്കെ ആണെങ്കില് ചികിത്സ ഫണ്ട് ഇല്ലാതെ ബുദ്ധിമുട്ടുന്നു എന്നല്ലാതെ ചികിത്സ കിട്ടാതയോ ആരോഗ്യ സംരക്ഷണത്തിന് ഒരു കോട്ടം തട്ടുന്ന രീതിയിലോ ഉള്ള ഒന്നും ഇവിടെ ഇല്ല നല്ല രീതിയിൽ ഉള്ള പ്രവർത്തനമാണ് പിന്നേ നല്ല എല്ലാ വെല വലിയ താങ്ങാവുന്ന വിലയായിരിക്കും സാധാരണകാർക്ക് താങ്ങാവുന്ന വിലയിൽ ഉള്ളതും ഉണ്ട് കാരണം നമുക്ക് പിന്നെ ഓരോരോ കാർഡുകൾ തന്നിട്ടുണ്ട് ഇപ്പം പ്രധാനമന്ത്രിൻ്റെ ആരോഗ്യ സംരക്ഷണത്തിൻ്റെ കാർഡ് അങ്ങനെ കുറെ കാർഡുകൾ എടുക്കുമ്പോൾ നമുക്ക് ഒത്തിരി വിലയാവില്ല മരുന്നിനും നമ്മൾ അവിടെ അഡ്മിറ്റ് ഒക്കെ ആകുമ്പോൾ പിന്നെ നല്ല രീതിയിൽ ഉള്ള ഇതാണ് നിയന്ത്രണ ചാർട്ടുകളുണ്ട് ഇപ്പം എല്ലാ ആഴ്ചയിലും ഇപ്പം സുഖമില്ലാത്ത പ്രഷർ കൊളെസ്ട്രോൾ ഷുഗർ ഒക്കെ ഉള്ള ആൾക്കാർ ആണെങ്കിൽ അവർക്ക് ആഴ്ചയിൽ ആഴ്ചയിൽ അല്ലെങ്കിൽ മാസത്തിലൊക്കെ ടെസ്റ്റ് ചെയ്തിട്ട് അവരുടെ ഭക്ഷണത്തിനും അവരുടെ ഭക്ഷണം കൂട്ടാനോ കുറയ്ക്കനോ എല്ലാം ഉള്ള നോക്കിട്ട് ഡോക്ടർ അവരെ പറഞ്ഞു മനസിലാക്കുന്നുണ്ട് അപ്പൊൾ എല്ലാവരിലും എല്ലാ കാര്യവും എത്തുന്നുണ്ട്